തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പാത്ര നിർമ്മാണം എന്താണ് ഒരു കലാരൂപമായിട്ടെന്താണ് വികസിച്ചിട്ടുണ്ട് ഇല്ലേ നമുക്ക് തീർച്ചയായിട്ടും അതുതന്നെ പറയാൻപറ്റും തീർച്ചയായിട്ടും അതെന്താണ് വിനോദസഞ്ചാരികൾക്കെന്താണ് ആകർഷകമായൊരു കാര്യം തന്നെയാണ് കാരണം അവരൊക്കെ അവരുടെ നാട്ടിൽ എന്നു പറയുമ്പോൾ തീർച്ചയായിട്ടും ഫാക്ടറി അതുപോലത്തെ അങ്ങനെ ഓരോ കാര്യങ്ങളിൽ നിന്നും ഉണ്ടാക്കിയതാണ് പാത്രങ്ങളായിക്കോട്ടെ അവർ യൂസ് ചെയ്യുന്നത് നേരെ മറിച്ച് അവർ നേരിട്ടെന്താണ് കാണുകയാണ് ഈ ഒരു കാര്യം അവർ ചെയ്യുന്ന ഈ ആളുകളെന്താണ് നിർമ്മാതാക്കൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ നേരിട്ട് കാണുകയും അവർ യൂസ് ചെയ്യുന്ന പാത്രം നമ്മുടെ കേരളക്കാർ അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന പ്രദേശത്ത് ആ പ്രദേശത്തെ ആളുകൾ യൂസ് ചെയ്യുന്ന പാത്രത്തെ എന്താണ് അവർ നേരിട്ട് കാണുകയും അവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മൺപാത്രം നിർമ്മാണം കലാരൂപമായി വികസിച്ചിട്ട് എന്താ വികസിച്ചിട്ടുണ്ടെന്നുതന്നെ പറയാൻ പറ്റുള്ളൂ അതിൽ നിന്നെന്താണ് നമ്മൾക്ക് ഇപ്പോൾ വിത്ത് നമ്മളുടെ പിന്നേ വീടുകളിൽ നിന്ന് നോക്കിയാൽ തന്നെ വ്യത്യസ്ത തരത്തിലുള്ള പാത്രങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കെന്താവും കാണാൻ പറ്റും നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതിലൂടെ എന്താണ് വ്യത്യസ്ത തരത്തിലുള്ള പാത്രങ്ങൾ തന്നെയാണ് ഒരാളുടെ കയ്യിൽ നിന്ന് വരുന്നത് തീർച്ചയായിട്ടും മണ്ണിനെന്താണ് പ്രത്യേക ട്യൂബോ കാര്യങ്ങളോ ഉണ്ടാക്കിയാൽ എന്താ സ്വന്തം തന്നെ നിർമ്മിതപ്പെടാൻ കഴിയില്ല അതിൽ തീർച്ചയായിട്ടും ഒരു നിർമ്മാതാവ് ഉണ്ടാകണം അത് വ്യത്യസ്ത രൂപത്തിൽ ഉണ്ടാക്കുമ്പോൾ തന്നെ അത് അവിടെ വർക്കാവുന്നത് എന്താണ് നിർമ്മാതാവിൻ്റെ ബുദ്ധിയാണ് അപ്പോൾ ഈ മൺപാത്ര നിർമ്മാണം എന്താണ് തീർച്ചയായിട്ടും നല്ല കലാരൂപം തന്നെയാണ് ഇനി വിനോദസഞ്ചാരികൾ എന്നു പറയുമ്പോൾ അവരുടെ നാട്ടിൽ നിന്ന് അവർ ഇങ്ങോട്ട് വിനോദ ഓരോ കാര്യങ്ങൾ കാണാൻ വരുന്ന സമയത്ത് തീർച്ചയായിട്ടും മൺപാത്രം നിർമ്മാണം കാണുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും എന്താ ധാരാളം ആളുകൾ ചുറ്റും കൂടിയിരിക്കുന്നത് കാണാൻ സാധിക്കും അത് തീർച്ചയായിട്ട് ഈ മൺപാത്ര നിർമ്മാണം ഉണ്ടാക്കുന്ന രീതി ഒരു ഒരു ഒരു കണക്കിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ആവും നേരെമറിച്ച് ആകർഷണീയമായിട്ടുതന്നെ അത് നോക്കും എന്ന് അല്ലെങ്കിൽ അത്ഭുതത്തോടെ അമ്പരാപ്പോടുകൂടി അത്ഭുതത്തോടുകൂടി നോക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് കാരണം അവരുടെ നാട്ടിലെ പാത്രം ഞാൻ പറഞ്ഞില്ലെ അവരുടെ നാട്ടിലെ പാത്രങ്ങൾ ഫാക്ടറി മുഖേന ആയിരിക്കും ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടുണ്ടാവുക അപ്പോൾ നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്ന ഇപ്പോൾ സാധനത്തെ നേരിൽ അവർ കാണുകയാണ് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് നിർമ്മിക്കപ്പെടുന്നത് എന്നത് അവരെന്താണ് നേരിൽ കാണുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും അവർക്കെന്താവും ആകർഷണീയം തോന്നിയേക്കാം അല്ലെങ്കിൽ അത്ഭുതം തോന്നിയേക്കാം നമുക്ക് നമ്മുടെ നാടിൽ കാണാത്തൊരു സാധനത്തെ പുറംനാടുകളിൽ കാണുമ്പോൾ തീർച്ചയായിട്ടെന്താണ് ആകർഷണീയമായിട്ട് നമുക്ക് തോന്നില്ല അതുപോലെത്തന്നെയാണ് അവരുടെ നാട്ടിൽ കാണാത്ത ഈ മൺപാത്ര നിർമ്മാണം നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ അവർക്കെന്താവുന്നത് ഈ ഒരു മൺപാത്ര നിർമ്മാണം ഒരു ആകർഷമായ ആകർഷണീയമായൊരു കാര്യമായി മാറുന്നതിൻ്റെ കാരണം ഇതുതന്നെയാണ്